ഇന്നത്തെ കാലത്ത് എല്ലാവിടെയും തിയേറ്ററുകളും അതിനനുസരിച്ച് ത്രീഡി പോലുള്ള മൾട്ടിപ്ലക്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായിട്ട് പുറത്തുനിന്ന് നമുക്ക് കൂടുതൽ ദൂരം ഒന്നും പോകേണ്ടി വരുന്നില്ല സിനിമകൾ കാണാൻ നമുക്ക് പുതിയ പുതിയ ഇറങ്ങിയ സിനിമകളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള അടുത്ത് ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് തീയേറ്ററുകൾ നമുക്ക് പോയി കാണാൻ പറ്റുന്നുണ്ട് അതിനനുസരിച്ച് ടിക്കറ്റ് ഒരു നൂറ്റി ഇരുപത് താഴത്തെ റോയ്ക്ക് അതിന് തൊട്ടുമുകളിലുള്ള ഹൈ ക്ലാസിന് നൂറ്റമ്പത് ഇരുന്നൂറ് ആ ഒരു ലെവലിൽ ആണ് ടിക്കറ്റ് നിരക്ക് ഉള്ളത് അതുപോലെ സൗകര്യങ്ങളൊക്കെ നല്ല സൗകര്യങ്ങളാണ് നമുക്ക് സുഖമായിരുന്നു കാണാൻ പറ്റുന്ന കസേരകളും അതേപോലെ ഫുള്ളി എ സി ആണ് സൗണ്ട് എക്കോ ഒന്നും അടിക്കില്ല നല്ല നല്ല കംഫർട്ട് ആയിരുന്ന് നമുക്ക് സിനിമകളൊക്കെ കാണാൻ പറ്റുന്ന തീയേറ്ററുകളും മൾട്ടിപ്ലക്സുകൾ ഒക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്